ക്രിസ്മസ് ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഈ വർഷം തൃശൂർ ലോക റിക്കോർഡ് നേടിയ പ്രശസ്ത പാപാനിമാരുടെ ഒരു നല്ലൊരു ഷോ ഉണ്ടായിരുന്നു പിന്നീട് ഓണത്തോടനുബന്ധിച്ചു തൃപ്പൂണിത്തറയിൽ നടന്ന അത്തച്ചമയഘോഷയാത്ര അതുകാണാൻ എന്തൊരു ഭംഗിയായിരിക്കും പുലികളി എന്തെല്ലാം ആൾ രൂപങ്ങളാണ് അതിലുള്ളത് അത് കാണാനായിട്ടു വിദേശികൾ വരെ എത്ര എത്ര ആസ്വദിച്ചിട്ടാണ് വന്നു വന്ന് കാണുന്നത് പിന്നെ കലോത്സവങ്ങൾ സ്കൂൾ കലോത്സവങ്ങൾ നടക്കുമ്പോൾ സ്കൂൾ കലോത്സവത്തിന് പോയാൽ അവിടെ എല്ലാവിധ ഡാൻസുകളും നമുക്ക് കാണാൻ സാധിക്കും ക്ലാസിക്കല് ഭാരതനാട്ട്യം മോഹിനിയാട്ടം ഒപ്പന മാർഗംകളി ചാക്യാർകൂത്ത് അങ്ങനെ പലവിധം അതിലൊക്കെ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് വന്നും പോയും വന്നും പോയും കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അമ്പലങ്ങളിലെ ഉത്സവത്തിനൊടനുബന്ധിച്ച് അവരുടെ പരമ്പരാഗത കലയായ ഓട്ടൻ തുള്ളൽ ചാക്യാർകൂത്ത് നാടകം നടക്കുന്നുണ്ട് കഥകളി കഥകളിയാണ് മെയിൻ കഥകളിയൊക്കെ കഥകളി പ്രേമികളായ ആൾക്കാർ രാ രാത്രി മുതൽ രാവിലെ വെളുപ്പിന് വരെയിരുന്ന് ഉറക്കൊഴിച്ചിരുന്ന് കാണുന്ന അവസ്ഥ വരെ കാണാൻ സാധിക്കും നമുക്ക് പിന്നെ നാടകം നാടകം ഇപ്പോൾ അമ്പലത്തിലായാലും പള്ളിയിലായാലും എവിടെയായാലും ശരി ജാതിമതഭേദമെന്യേ എല്ലാവരും പോയിരുന്നു ആസ്വദിച്ചു കാണുന്ന ഒരു പരിപാടിയാണ് നാടകം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ട്ടമാണ് പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറൽ ആയിട്ടുണ്ടായിരുന്ന റിയാലിറ്റി ഷോസ് റിയാലിറ്റി ഷോസ് കാണുന്നതിന് വേണ്ടി തന്നെ ഒത്തിരി ആൾക്കാർ ആ ടൈം നോക്കി അവിടെ വന്നിരുന്നു കാണുന്ന ആൾക്കാരുണ്ട് പിന്നെ ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ പൊങ്കാല ലക്ഷക്കണക്കിന് ആൾക്കാര്കളാണ് അവിടെ വന്ന് പൊങ്കാല ദേവിക്ക് പൊങ്കാല അർപ്പിച്ചിട്ട് പോകുന്നത് അതിനുമാത്രം തിരക്കായിരിക്കും അവിടെ അവരു രണ്ടു ദിവസം മുൻപവർ സ്ഥലമൊക്കെ നോട്ട് ചെയ്ത് ബുക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുപോയി പൊങ്കാല അർപ്പിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ സിനിമാക്കാരെന്നോ സാധാരണ ആൾക്കാരെന്നോ ഒരു വ്യത്യാസവുമില്ലാതെയാണ് ദേവിയുടെ മുൻപിൽ ആൾക്കാർ പൊങ്കാല അർപ്പിച്ചിട്ടു പോകുന്നത്